ബൈക്കിങ് യാത്രയിൽ പ്രത്യേകിച്ച് നമുക്കു കൊണ്ടെടുക്കാൻ പറ്റുന്നൊരു ടൂൾ സ്പാനറാണ് എന്തെങ്കിലും നട്ടോ ബോള്ട്ടോ ടൈറ്റെയ്യാന് പിന്നെ ചെറിയൊരു കുപ്പി കണ്ടെയ്നർ എന്തെങ്കിലും കൊണ്ടുനടക്കാം പെട്രോളൊക്കെ എവിടെ വച്ചാണ് സ്റ്റോപ്പാവുന്നതെന്നു പറയാൻ പറ്റില്ല അതാണ് മെയിൻ പ്രശ്നം അഭിമുഖീകരിക്കാറുള്ളത് പെട്ടെന്നൊക്കെ സ്റ്റക്കാവുന്നത് നല്ലൊരു സേഫായിട്ടുള്ള കാര്യമല്ല എന്നാണ് എൻ്റെ ഒരു വിശ്വാസം മെക്കാനിക്കൽ പ്രശ്നങ്ങൾ അങ്ങനെ തന്നത്താന് കൈകാര്യം ചെയ്യാറൊന്നുമില്ല നമ്മക്ക് അങ്ങനെയെന്തെങ്കിലും അത്യാവശ്യം കണ്ടീഷനുള്ള ബൈക്കൊക്കെ ആയിട്ടായിരിക്കും പോകുന്നത് പിന്നെ വഴിയിൽ എവിടെങ്കിലും മെക്കാനിക്സൊക്കെ ഉണ്ടെങ്കിലും പിന്നെ ടയര് പഞ്ചറാവുക അങ്ങനെ കാറ്റ് ഒഴിയുന്നത് കാറ്റില്ലാതിരിക്കുക അങ്ങനെ എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങളുടെ നമ്മള് അവിടെ അടുത്ത് നിയർബൈ ചെയ്യേണ്ടതായിട്ടുള്ള എവിടെയെങ്കിലും പോയിട്ടു ചെയ്യാമെന്നല്ലാതെ അങ്ങനെയാണു ചെയ്യാറ് കൂടുതലായിട്ടും

ഒരു കുപ്പിയൊക്കെ എപ്പോഴും കരുതിയിരിക്കുന്നതു നല്ലതാണ് പെട്രോളൊക്ക പെട്രോളൊക്കെ പെട്ടെന്ന് തീര്ന്നുകഴിഞ്ഞിട്ടുണ്ടെങ്കില് നമുക്ക് എവിടുന്നെങ്കിലും വാങ്ങിയിട്ടു സംഘടിപ്പിക്കാൻ കഴിയും നോക്കാം അങ്ങനെ പിന്നെ കോട്ട് കാര്യങ്ങള് അങ്ങനത്തെയൊക്കെ യാത്രയ്ക്കിടയില് റെയിൻകോട്ടെല്ലാം കൊണ്ടു നടക്കാം